തൊട്ട് അടുത്ത എൻ്റെ പ്രദേശത്തുള്ള ആരോഗ്യ പ്രവർത്തന മേഖലയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ പണ്ടത്തതിനെ പണ്ടത്തതിനു പോലെത്തന്നെയാണ് പിന്നെ ആശുപത്രികളിൽ മാറ്റം എന്ന് വച്ചാൽ തൊട്ടടുത്ത ആശുപത്രികളിൽ മെഡിക്കൽ കോളേജായി ഉയർന്നിട്ടുണ്ട് ഉയർന്നിട്ടുണ്ട് എന്നു പറഞ്ഞാൽ മെഡിക്കൽ കോളേജായിട്ട് ബിൽഡിങ്ങൊക്കെ പണിയുന്നുണ്ട് പക്ഷേ അവിടെ ചികിത്സ രീതിയിലൊന്നും പ്രതേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പണ്ടത്തെ പോലെത്തന്നെയാണ് പഴയത് പോലെത്തന്നെയാണ് പിന്നെ ഡോക്ടേഴ്സ് പണ്ടത്തെ ഡോക്ടേഴ്സിൻ്റെ അത്രപോലും ഇപ്പോൾ ഡോക്ടേഴ്സ് ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സമയവും എന്താ പറയുക എല്ലാ വിധത്തിലും എല്ലാ രോഗത്തിനും ഉള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഉള്ള ഡോക്ടേഴ്സ് ഒന്നുമില്ല ഒരു വിധം എല്ലാ രോഗത്തിനുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവുന്നതാണല്ലോ മെഡിക്കൽ കോളേജ് അങ്ങനെയൊന്നും വന്നിട്ടില്ല പിന്നെയുള്ളതെന്ന് വച്ചാൽ അഡ്മിറ്റ് ആകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക ഹോസ്പിറ്റല് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ നല്ല വൃത്തി വന്നിട്ടുണ്ട് പണ്ടത്തേതിനെക്കാളും എത്രയോ ഭേദമാണ് നല്ല വൃത്തി ബാത്ത് റൂമൊക്കെ കുറച്ച് നന്നായി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അതൊരു മാറ്റം തന്നെയാണ് അല്ലാണ്ട് പ്രതേകിച്ച് ചികിത്സയിലൊന്നും മാറ്റം വന്നിട്ടില്ല പിന്നെ ബിൽഡിങ്ങ് ഒക്കെ മാറി കുറച്ച് ബിൽഡിങ്ങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത്രയേയുള്ളു